ഞാൻ എങ്ങനെയാണ് മലയാളം പഠിച്ചതെന്ന് വച്ചാൽ സ്കൂളിൽ നിന്ന് തന്നെയാണ് സ്കൂളിൽ നിന്ന് ഇപ്പോൾ നമ്മുടെ സംസാരം നമ്മുടെ മാതൃഭാഷ എന്നത് മലയാളം തന്നെയാണല്ലോ അപ്പം നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്നും ചെറു ചെറിയ പ്രായം തൊട്ട് തന്നെ നമ്മൾ ജനിച്ച് വീഴുന്ന ആ സമയം തൊട്ട് തന്നെ നമ്മൾ കേട്ട് കൊണ്ടിരിക്കുന്ന നമ്മുടെ അമ്മ അച്ഛൻ അതുപോലെ വീട്ടിലുള്ള എല്ലാവരും പരസ്പരം സംസാരിക്കുന്നത് ഈ മലയാള ഭാഷ തന്നെയാണ് ഇത് തന്നെയാണ് നമ്മൾ കേട്ട് കേട്ട് പഠിക്കുന്നതും അപ്പോൾ നമ്മള് സംസാരിക്കാൻ പറ്റുന്ന ഒരു ഒന്നൊന്നര വയസ്സ് വരെ ഇത് കേട്ട് കേട്ട് കേട്ട് അവരുടെ എന്താണ് പറയുന്നത് എന്ത് ഏത് രീതിയിലാണ് പറയുന്നത് എന്തൊക്കെയാണ് എന്തിന് വേണ്ടിയാണ് ഈ വാക്ക് സംസാരിക്കുക ഇതൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ പഠിച്ച് പഠിച്ചാണ് നമ്മള് പഠിക്കുന്നത് അപ്പം അങ്ങനെ അവരോടൊക്കെ സംസാരിച്ച് ചെറിയ നമ്മൾ അമ്മ എന്നാണ് ഫസ്റ്റ് വിളിച്ച് വരുന്നത് അത് തന്നെ ഒരു അമ്മ എന്ന് പറയുന്നത് തന്നെ ഒരു മാതൃഭാഷ ആണല്ലോ അപ്പോൾ ആ അമ്മ എന്ന വാക്ക് തൊട്ട് നമ്മൾ ഇങ്ങനെ ഓരോ മലയാള വാക്കുകള് പഠിച്ച് പഠിച്ച് വന്ന് പിന്നെ നമ്മള് നാല് വയസ്സായാൽ സ്കൂളിൽ പോകും അപ്പം നാല് വയസ്സ് വരെ നമ്മൾ വീട്ടിൽ നിന്നു തന്നെയാണ് മലയാള ഭാഷ പഠിച്ച് വരുന്നത് പിന്നീട് സ്കൂളിൽ പോയി സ്കൂളിൽ ഒരുപാട് വിഷയങ്ങളുണ്ട് അതൊക്കെ നമ്മൾ മലയാള മലയാളത്തിൽ തന്നെയാണ് പഠി പിന്നെ ഒരു അഞ്ചാം ക്ലാസ്സിൽ എത്തുമ്പോഴൊക്കെയാണ് ഇംഗ്ലീഷ് ഭാഷ അത് പോലെ ഹിന്ദി എന്നിവയൊക്കെ പഠിച്ച് വരുന്നത് അത് കൊണ്ട് മലയാള ഭാഷ നമ്മൾ ജനിച്ച് വീഴുന്നത് വീഴുമ്പോൾ തന്നെ കേട്ട് തുടങ്ങുന്നത് തന്നെ മലയാള ഭാഷയാണ് എൻ്റെ അനുഭവം എന്ന് വെച്ചാൽ ഈ ഞാ നമ്മളിപ്പോൾ എങ്ങോട്ട് തിരിഞ്ഞാലും നമ്മളിപ്പം നമ്മളെ ഈ കേരളത്തിൽ എങ്ങോട്ട് തിരിഞ്ഞാലും ഈ മലയാള ഭാഷ തന്നെയാണ് നമ്മുടെ മാതൃഭാഷ അത് കൊണ്ട് തന്നെ എൻ്റെ അനുഭവം എന്ന് വച്ചാല് ഈ മലയാള ഭാഷ നമ്മുടെ എവിടെ പോയാലും മലയാള ഭാഷ ആണ് നമ്മൾ കൂടുതൽ സംസാരിക്കുന്നതും അത് തന്നെയാണ്